ഈ വയനാട് ജില്ലയിലെ വയോജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നംന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പെൻഷൻ്റെ ഇതാണ് കാരണം കാരണം കൃത്യ സമയത്തല്ല അവർക്ക് അവരുടെ പെൻഷൻ ലഭിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നമ്മുടെ വയനാട് ജില്ല അത് എന്ത് മേഖല ആണെങ്കിലും പുറകിൽ നിൽക്കുന്നൊരു ജില്ലതന്നെയാണ് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് പെൻഷൻ എത്തും നമ്മുടെ വയനാട് ജില്ലയിലെ ആൾക്കാർക്ക് പതിയെ പതിയെ ആണ് പെൻഷൻ എത്തുന്നത് അപ്പോൾ നമ്മുടെ വയോജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ പെൻഷൻ്റെ അപര്യാപ്തത എന്ന് പറയുന്നത് പിന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണം ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പഴയ ഈ നമ്മുടെ വയോജനങ്ങൾന്ന് വെച്ചാൽ അവർക്ക് ഒരു പെട്ടെന്ന് രോഗങ്ങളും മാറാരോഗങ്ങളൊക്കെ പിടിപിടാം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ചുറ്റുപാടും തന്നെ കാരണം നമ്മുടെ ചുറ്റുപാട് അത്രയും മലിനമാക്കപ്പെട്ടു കൊണ്ടിരിക്കാണ് അപ്പോൾ അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഒന്ന് ആരോഗ്യ സംരക്ഷണം തന്നെയാണ് കാരണം അവർക്ക് അവർടെ കാരണം അവർക്ക് നമ്മുടെ ചുറ്റുപാടുമായി യോജിച്ച് പോവാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവരടെ സാമൂഹിക പിന്തുണ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം സാമൂഹിക പിന്തുണയൊക്കെ ലഭിക്കുന്നുണ്ട് ലഭിക്കുന്നുണ്ട് പിന്നെ അവരുടെ അന്തസ്സ് എന്നൊക്കെ പറയുവാണെങ്കിൽ അവർ എന്തുകൊണ്ടും ഒറ്റക്ക് ജീവിക്കാണെങ്കിൽ കൂടെ തങ്ങളുടെ പെൻഷന് മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ ഇഷ്ട്ടപ്പെടുന്നൊരാണ് വയനാട്ടിലെ വയോജനങ്ങൾ എന്ന് പറയുന്നത്